ഹലോ ഇത് പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റലല്ലേ ആ ഞാൻ എനിക്കൊരു പെറ്റുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറുതായിട്ട് കുറച്ച് അസുഖങ്ങൾ എന്താ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല എനിക്കൊരു ക്യാറ്റാ ഉണ്ടായിരുന്നത് ഏ പേർഷ്യൻ ക്യാറ്റാ അത് ഫുഡിപ്പം ഇത്ര ദിവസം കൊഴപ്പോന്നുമില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നില്ല പിന്നെ ഇടക്കിടക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ക്യാറ്റ് ഫുഡ് കൊടുക്കാറുണ്ട് അതേപോലെതന്നെ പിന്നെ അല്ലാണ്ട് നമ്മൾ ചോറൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഏ ഇല്ലില്ല അങ്ങനൊന്നും കൊടുക്കാറില്ലാ എന്നും നോർമലായിട്ട് എപ്പോഴും കൊടുക്കുന്ന പോലെത്തന്നെ കൊടുക്കാറുള്ളൂ ചെറുതായിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ സൈഡിന്നൊക്കെ പോവുന്നുണ്ട് പക്ഷേ ഭയങ്കര സിവിയെറായിട്ടൊന്നും ഇല്ല ചെറുതായ രീതിയിൽ ആ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ എപ്പോഴും കിടപ്പാണ് ഫുഡൊന്നും കഴിക്കാൻ ഒരു എനെർജിറ്റിക്കല്ലാ അല്ലല്ല അല്ല ആ ഓക്കേ

ഒരു ദിവസം ആ ഒറ്റ നേരം കൊടുത്താൽ മതിയോ അപ്പോയിത് മെഡിക്കൽ ഷോപ്പിൽ ഇവിടെ കിട്ടുവല്ലോല്ലേ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ഡോക്ടർ ഉണ്ടാവോ അവിടെ അതോ ആ നാളെ ലീവൊന്നും ഇല്ലാലോ ലെ ഹോസ്പിറ്റൽന്നും ആ ഞാൻ കുറവില്ലെങ്കിൽ കൊണ്ടുവരാം അല്ല വാക്സിൻ കഴിഞ്ഞൊരു മന്ത് എടുത്തതായിരുന്നു ഈ മാസത്തെ രണ്ട് മാസം കഴിഞ്ഞിട്ടൊള്ളതാവുന്നേ ഉണ്ടാർന്നുള്ളൂ അയ്യോ അതില്ലെങ്കിൽ അല്ലല്ല ഇവിടെന്നായിരുന്നു എടുത്തത് ഇവിടെ ഇങ്ങനെ ടു മന്ത് കൂടുമ്പോൾ ഡോക്ടറ് ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം അവിടെന്നാണ് ചെയ്തത് എന്തിൻ്റെ ആർന്നു ഞാൻ ഫ്രീയായിട്ട് ഞാൻ നോക്കീട്ട് ഞാനൊന്ന് ഇൻഫോം ചെയ്താൽ മതിയോ ആ ഓക്കേ ഓക്കേ താങ്ക് യൂ